സമൂഹത്തിൽ അന്നന്നത്തെ അല്ലെങ്കിൽ അപ്പാഴപ്പോഴത്തെ രോഗങ്ങളെക്കുറിച്ച് ബോധവൽകരണങ്ങൾക്ക് സർക്കാർ തയ്യാറാണ് ചെയ്യുന്നുമുണ്ട് ബോധവൽക്കരണം നടത്താൻ മൈക്ക് വെച്ച് പറയുക അല്ലെങ്കിൽ ഓരോരോ മഹിളാ സംഘങ്ങൾ അല്ലെങ്കിൽ ബാലവാടികള് അങ്ങനെയുള്ള സ് കേന്ദ്രങ്ങളിൽ വെച്ച് അതിനെക്കുറിച്ച് സമൂഹങ്ങളിൽ സമൂഹത്തിൽ ബോധമുണ്ടാക്കാൻ വേണ്ടീട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകളൊക്കെ നടത്താറുണ്ട് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ആ ബോധവൽക്കരണ പരിപാടി പൊതുവായിട്ടുള്ള പരിപാടീന്ന് പറയാൻ പറ്റില്ല ഈ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഗുണം കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഇവർ ചെയ്യുകയുള്ളു അല്ലെങ്കിൽ അത് പൊതുവായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നടത്താൻ ഈ മൈക്ക് പ്രചാരണം മാത്രമേയുള്ളൂ അതല്ലാതെ ഇതിൻ്റെ ബോധവൽക്കരണം വീടുവീടാന്തരം പോയി നടത്താൻ വളരെ അധികം ബുദ്ധി ഇപ്പോഴും മടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്ക് എന്താണ് മെച്ചം എന്നാണ് ഓരോ സർക്കാർ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളും ചിന്തിക്കുന്നത് അങ്ങനെ എല്ലാറ്റിലും സങ്കുചിതമായ തീരുമാനങ്ങളുള്ളത് കൊണ്ട് ഈ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സർക്കാർ നടത്തൽ വലിയ ഗുണം ചെയ്യുന്നില്ല അതിലുപരി കേരളത്തിൽ ഒക്കെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ ഒരു വിധം എല്ലാവരും ഈ പത്രത്തിൽ കൂടിയിട്ടും ടീവിയിൽ കൂടിയിട്ടും മാധ്യമങ്ങളിൽ കൂടിയിട്ടും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നതും വായിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് കൊണ്ടും സർക്കാരിൻ്റെ ഒരു ബോധവൽക്കരണ പരിപാടിക്ക് നിന്നുകൊടുക്കേണ്ട അവസ്ഥ ഇല്ല എന്നുള്ളതാണ് യാഥാർഥ്യം